മൃഗങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ബിസിനസ്സ് പരമായി നടത്തുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആരെയും നിർത്താറില്ല ഞങ്ങളുടെ ബിസിനസ്സ് എല്ലാം ഞങ്ങൾ ഇത് പരിപാലിക്കുന്നതും അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം വൃത്തിയാക്കുന്നതും എല്ലാം ഞങ്ങൾ തന്നെ വീട്ടിൽ ഉള്ളവർ തന്നെയാണ് ഞങ്ങൾക്ക് പുറത്തു നിന്ന് ഞങ്ങൾ ആരെയും വയ്ക്കാറില്ല ഞങ്ങളുടെ ഞങ്ങളുടെ മൃഗങ്ങളെ ഞങ്ങൾ പരിപാലിക്കുന്നു അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു രാവിലെ കറക്കുന്നതാണെങ്കിൽ കറക്കുന്നു അത് കഴിഞ്ഞിട്ട് ചാണകം വാരി വൃത്തിയാക്കി കുളിപ്പിച്ചു കറന്നു ഭക്ഷണം കൊടുത്തു വീണ്ടും നിർത്തുന്നു അത് കഴിഞ്ഞു പരിസരങ്ങളെല്ലാം ഞങ്ങൾ തന്നെ വൃത്തിയാക്കുകയും പരിസരങ്ങൾ വൃത്തിയായി ചാണകം എല്ലാം വാരി തൊടിയിൽ കൊണ്ടുകളയും വേറെ കൊണ്ടുപോയി മാറ്റി കളയുകയും അവയുടെ വീടും പരിസരവും എല്ലാം നമുക്ക് വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടുന്നതായ തീറ്റകളും കുടികളും എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സഹായികളായി ആരും തന്നെയില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാവരും പരസ്പരം സഹായമായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ ചെയ്തു തീർക്കുകയാണ് പതിവ് അതിന് കൊടുക്കുന്ന സഹായികളായി ഞങ്ങൾക്ക് ആരും തന്നെയില്ല ഞങ്ങൾ വീട്ടിലുള്ളവർ തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത് പരിപാലിക്കുന്നതും അവയ്ക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നതും വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് എന്നും കൂട് കഴുകി വൃത്തിയാക്കാറുണ്ട് കുളിപ്പിച്ച് വൃത്തിയായി സൂക്ഷിക്കുന്നു കൂടും പരിസരങ്ങളും എല്ലാം വൃത്തിയായി തന്നെ പരിസരങ്ങൾ എല്ലാം നന്നായി തന്നെ വൃത്തിയാക്കി സൂക്ഷിക്കാറുണ്ട് അതിനെ എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് ഒരാൾ മാത്രമല്ല ഞങ്ങളുടെ മൃഗങ്ങളെ വളർത്തുന്നതിനെ ഒരു മൃഗങ്ങളുടെ പരിപാലനം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കയും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിലുള്ള മാതാപിതാക്കന്മാരായ ഞങ്ങളാണ് ഏറ്റവും കൂടുതലായി ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ കിട്ടുന്നതായ എല്ലാ വരുമാനമാർഗ്ഗങ്ങളോടും കൂടെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് എല്ലാ സഹകരണ മനോഭാവത്തോടുകൂടെ ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവ്വഹിക്കുവാനും നടത്തികൊണ്ടുപോകുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കിട്ടുന്ന വരുമാനം ഞങ്ങൾ ഞങ്ങളുടെ ജീവിത മാർഗ്ഗമായി കണ്ടെത്തുകയും അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം ഞങ്ങൾ ജീവിച്ചു പോവുകയും ചെയ്യുന്നു അവയ്ക്ക് വേണ്ടുന്നതായ എല്ലാ പരിപാലനങ്ങളും നടത്തുന്നുണ്ട് ഭക്ഷണം കൊടുക്കാൻ കൃത്യമായി കൊടുക്കുന്നു കൃത്യമായി ഭക്ഷണം കൊടുത്ത് എല്ലാത്തിനേയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ വീടുകളിൽ അധികവും ബിസിനസ്സായി ഒരുപാട് മൃഗങ്ങളൊന്നും ഞങ്ങളുടെ വീടുകളിൽ വീട്ടിൽ ഇല്ല ഞങ്ങളുടെ വീട്ടിൽ കുറച്ചു മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളവയ്ക്കു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുകയും വളർത്തുകയും കുളിപ്പിച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നു കൂടും പരിസരവും നല്ല വൃത്തിയായി തന്നെ സൂക്ഷിക്കാറുണ്ട് പിന്നെ ആ അതുകൊണ്ട് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും അതിനെ വളർത്തുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഞങ്ങൾക്കില്ല ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഞങ്ങളെല്ലാവരും തന്നെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് പുറത്തു നിന്ന് ആരെയും നോക്കി നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ തന്നെ ചെയ്യുന്നു ഞങ്ങളുടെ വീടും പരിസരവും ആ കാലിക്കൂടുകളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയും നന്നായി വളർത്തുകയും ചെയ്യുന്നുണ്ട് അവയുടെ പരിപാലനം ഞങ്ങൾ കുടുംബാംഗങ്ങൾ തന്നെ നിർവ്വഹിക്കുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു